അതെ അതെ മാനേജർ ആണ് സംസാരിക്കുന്നത് പേര് എന്താണെന്നാണ് പറഞ്ഞത് ആ ആനി നമുക്ക് എസ് എസ് ഐ ഡി മിറർ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഉണ്ട് അത് ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് അത് വെച്ച് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ആനിക്ക് എന്തെങ്കിലും നാളെ വരാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ വരുവാണെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരാമായിരുന്നു അത് പേടിക്കാനൊന്നും ഇല്ല നമുക്ക് നല്ല നൂറ് ശതമാനം സേഫ് ആയിട്ടുള്ള ഒരു ഇതാണ് അപ്പം നമ്മൾ പിൻ നമ്പരും എല്ലാം സെറ്റ് ചെയ്ത് പാസ്വേർഡ് ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതൊന്നും പേടിക്കണ്ട താൽപ്പര്യം ഉണ്ടെങ്കിൽ പറയുക അങ്ങനെ ഒരു പേടിയേ വേണ്ട കാരണം നമ്മൾ ഇതിന് കൃത്യമായിട്ടുള്ള പാസ്വേർഡും അതെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഫോൺ നഷ്ടപ്പെട്ടാലും എൻ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും നമുക്കത് വീണ്ടെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു പേടി വേണ്ട ആ നാളെ വന്നാൽ മതി നാളെ ബാങ്കിലോട്ട് വരുവാണെങ്കിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് തരാം ഓ ഒരു ഒരു പ്രാവശ്യത്തെ കാര്യം ഉള്ളല്ലോ അപ്പം എപ്പോഴും വരേണ്ട അവശ്യം ഇല്ല അതെ അതെ വീട്ടിലിരുന്ന് തന്നെ എല്ലാം ചെയ്യാൻ പറ്റും അപ്പം വരാൻ പറ്റും എന്നുണ്ടെങ്കിൽ നാളെ എന്നെ കോൺടാക്ട് ആ അതെ അതെ എല്ലാം അപ്പ് ടു ഡേറ്റ് ആയിട്ട് വരും ആ ശരി ആനി